ഹോട്ടലിലും തട്ടുകടയിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്താ കഴിക്കാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതായത് പിന്നെ പൊറോട്ട മീൻകറി അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറി പൊറോട്ട ചിക്കൻ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം പിന്നെയെന്ന് വെച്ചാൽ ഉച്ചക്കൊക്കെയാണെങ്കിൽ കൂടുതലും ചിക്കൻ ബിരിയാണി അങ്ങനത്തെയൊക്കെയാണ് കഴിക്കുക കാരണം ഞാൻ ബീഫ് പന്നി അങ്ങനത്തെയൊന്നും കഴിക്കില്ല ചിക്കൻ മാത്രമേ കഴിക്കുകയുള്ളു അപ്പം അങ്ങനത്തെയൊക്കെ കഴിക്കാനാണ് താത്പര്യം പിന്നെയെന്ന് വെച്ചാൽ തട്ട് കടയിലൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവെനിങ്ങ് ടൈമിൽ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്തലും പിന്നെ പൂരി പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാകുക പൊറോട്ട അങ്ങനത്തെയൊക്കെ ഇപ്പോൾ അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെയൊക്കെയാണ് കഴിക്കാറ് അവിടെ നമുക്ക് നല്ല ചിക്കൻ ഫ്രൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ കാട ഫ്രൈ അതൊക്കെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ കഴിക്കാൻ തന്നെ നമ്മൾ നൈറ്റ് ഒക്കെ അതായത് തട്ട്കടയിലും കാര്യത്തിലൊക്കെ തട്ട്കടയിലൊക്കെ ഇങ്ങനെ പോകാറുണ്ട് അപ്പോൾ അതൊക്കെ നല്ലൊരു മൊമെൻറ്റ്സാണ്